കർഷകർ ഞങ്ങൾ ഞങ്ങളുടെ ഈ ഈ പ്രദേശം മുഴുവൻ കൃഷികളുടെ കൃഷിയുടെ കലവറയാണ് നെൽക്കൃഷിയുടെ കലവറയാണ് കുട്ടനാടെന്ന് പറയുന്നത് കർഷകരുടെ അവസ്ഥ ചർച്ച ചെയ്യാനായിട്ട് ഒര് മാധ്യമപ്രവർത്തകരും മാധ്യമ പ്രവർത്തകരും സന്നദ്ധത കാണിക്കാറില്ല കാര്യം അവരത് അവർക്ക് കൂടുതലും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് അവരുടെ അപകടക അപകട മരണങ്ങളും രാഷ്ട്രീയ ചർച്ചകളും ഒക്കെ അല്ലെ ട്രെ ഒക്കെ അതിലൊക്കെയാണ് അവര് അവരുടെ ചർച്ചകളു മായി പ്രത്യേക കൃഷിക കൃഷിക്കാര് ഒന്നിനൊന്നിന് പുറകോട്ട് പോവുകയാണ് അതുകൊണ്ടവരുടെ അവസ്ഥകളെക്കുറിച്ച് അവരുടെ ബുദ്ധിമുട്ടുകള് പ്രയാസമനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകള് ഒന്നും തന്നെ പുറംലോകം അറിയുന്നില്ല അവര് കൃഷികൾ കൃഷിക്കാരിൽ തന്നെ ഒതുങ്ങി ഇരിക്കു ഒതുക്കി ഒത് ഒതുക്കി കൂട്ടി ഇരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കൃഷികാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള വളരെ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ട് ഇന്നത്തെ തൊഴിൽമേഖലകളില് ഇന്നത്തെ കൂലിവർധനകളിലൊക്കെ കൃഷിക്കാർക്ക് പിന്നെ കൃഷി ചെയ്യാനായിട്ട് ഉള്ള താൽപ്പര്യം വളരെ കുറഞ്ഞ് വരുന്നു പിന്നെ ആകെ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് കൃഷിയായത് കൊണ്ട് മാത്രം കൃഷിയിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നവരാണ് കുട്ടനാട്ടുകാര് അതുകൊണ്ട് അവര് വളരെ സഹിച്ചാണെങ്കിലും പാരമ്പര്യമായി കിട്ടിയ ആ മുതൽ കൈമോശം വരാതെ അവര് അത് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട് മാധ്യമ പ്രവർത്തകര് കൃഷി ഇതിലേക്ക് ചർച്ച ചെയ്യാത്തത് കൊണ്ട് ഉ ഉണ്ട് അവരുടെ പ്രശ്നങ്ങള് ആരുമറിയാതെ പോവുന്നു അത്കൊണ്ട് മാധ്യമം അവരുടെ സത്യസന്ധമായിട്ട് മാധ്യമപ്രവർത്തകര് കൃഷീ ക്കാരുടെ പ്രശ്നങ്ങള് ചർച്ച ചെയ്യുകയും അവർക്ക് വേണ്ട ആവശ്യങ്ങള് വേണ്ട ആവശ്യങ്ങള് കണ്ടെത്താനും അത് നിലനിർത്തികൊണ്ട് പോവാനും അത് ശ്രമിക്കണം